അതെ നമുക്ക് പിന്നെ വയനാട്ടിലേക്കൊരു ടൂറ് പോകാനായിരുന്നു ആഹ് ഇപ്പം ഈ കാലാവസ്ഥയിൽ നമ്മൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

ഇതൊത്തിരി ആയി നമ്മളൊരു പത്തു പേരെങ്കിലും ഉണ്ടാവും ആഹ് ആഹ്

ആ ആഹ് ആഹ്

അടുത്ത മാസം അല്ലേ

അപ്പം ഒരു ഏഴ് ദിവസത്തേതാണ് ഉദ്ദേശിക്കുന്നത്

ആയിക്കോട്ടെ